ഞങ്ങളുടെ കമ്മ്യൂണിറ്റിയിൽ നർത്തകരുടെ കഴിവുകൾ മെച്ചപ്പെടുത്തുന്നതിനും മികച്ച പ്രകടനത്തിലേക്ക് നയിക്കുന്നതിനും സഹായിക്കുന്ന കുറേ പരിശീലന പരിപാടികളും ഉണ്ട് ഞങ്ങളുടെ ഗ്രൂപ്പിൽ ഞങ്ങളുടേതിൽ എസ് എച്ച് ജി ഗ്രൂപ്പിൽ തന്നെ ഡാൻസ് കളിക്കാനായിട്ട് നൃത്തം പരിശീലിക്കാനായിട്ട് അത് താല്പര്യമുള്ള കുറേ ആൾക്കാർ ഉണ്ട് കുറേ ആവർ വീട്ടമ്മമാരുടെ മക്കളാണ് കുറേ ഉദ്ദേശിക്കുന്നത് അവരെ ഞങ്ങളുടെ ഗ്രൂപ്പ് കമ്മ്യൂണിറ്റി ഗ്രൂപ്പിൽ തന്നെയുള്ള കുമാരി ശ്രീലത കലാമണ്ഡലത്തിൽ പോയി നൃത്തം അഭ്യസിച്ചിട്ടുള്ള വ്യക്തിയാണ് മോഹിനിയാട്ടത്തിലാണ് അവർ ഡിഗ്രി എടുത്തിരിക്കുന്നത് അവർ തീർച്ചയായിട്ടും ഇങ്ങനെ ഒരാഗ്രഹം കുട്ടികൾ പറഞ്ഞപ്പോൾ സൗജന്യമായിട്ട് തന്നെ അവരെ ഒന്ന് നൃത്തത്തിലൊന്ന് പരിശീലിപ്പിക്കാമെന്ന് ഏൽക്കുകയുണ്ടായി അത് വളരെ അധികം വിജയകരമായിട്ട് മുന്നോട്ട് പോവുന്നു ഇപ്പോൾ ടീച്ചറിൻ്റെ കീഴിൽ പതിനഞ്ച് കുട്ടികൾ നമ്മുടെ ഗ്രൂപ്പിൽ തന്നെ ഇല്ലെ നമ്മുടെ ഈ പരിസര പ്രദേശങ്ങളിലുള്ള കുട്ടികളും പതിനഞ്ച് കുട്ടികളും അതുപോലെ തന്നെ കുറച്ച് വീട്ടമ്മമാരായ അമ്മമാരും നൃത്തത്തെ ആഗ്രഹിക്കുന്ന അമ്മമാരും ഉള്ള ഒരു ഗ്രൂപ്പ് ഏകദേശം ഒരിരുപത് പേരടങ്ങുന്ന ഒരു ഗ്രൂപ്പ് വളരെ വിജയകരമായിട്ട് മുന്നോട്ട് പോവുന്നുണ്ട് ടീച്ചർക്ക് ഒന്നും പൈസ ഫീസൊന്നും വേണ്ട എന്നു പറയുന്നെങ്കിൽ പോലും കുട്ടികളും അവരുടെ മാതാപിതാക്കളും ചേർന്ന് ചെറിയൊരു തുക സംഭാവനയായിട്ട് നൽകുന്നുണ്ട് അവ അത് വളരേയധികം ഒരു മുന്നോട്ട് പോവുന്നുണ്ട് വിജയകരമായി മുന്നോട്ട് പോവുന്നു എന്നു കണ്ടതിനാൽ തന്നെ ഞങ്ങൾ ആ ഗ്രൂപ്പ് തുടങ്ങിയതിൽ കുറച്ച് പേർ മോഹിനിയാട്ടമെന്നതല്ലാതെ ഭാരതനാട്യം അതൊക്കെ ആഗ്രഹിക്കുന്ന കുട്ടികൾക്ക് ഒരു ടീച്ചറെ കണ്ടെത്തുകയും കല ഈ ശ്രീലത ടീച്ചറ് തന്നെ കലാമണ്ഡലത്തിൽ അവിടെ പഠിച്ച വേറൊരു കുട്ടിയായ ധന്യ എന്ന കുട്ടിയെ കൊണ്ടുവരികയും അതിന് ഭരതനാട്യം അഭ്യസിക്കാനായിട്ട് വേണ്ടുന്നവരെ കണ്ടുപിടിച്ച് ഇപ്പോഴൊരു ഏഴു കുട്ടികൾ ഭരതനാട്യത്തിന് അഭ്യസിക്കാനായിട്ട് ഇപ്പോൾ തുടർന്ന് പോകുന്നുണ്ട് അതുകൂടാതെ ഞങ്ങൾക്ക് വളരെ അധികം താല്പര്യമുണ്ട് ഇങ്ങനെ കുട്ടികളുടെ ഈ ഒരു താൽപ്പര്യം നിസ്സാര വളരെ അധികം മുന്നോട്ട് ഇവിടെ നൃത്തം അഭ്യസിക്കുന്നതിനോടുള്ള താൽപ്പര്യം കണ്ടതിനാൽ ഭരതനാട്യം കൂടാതെ മോഹിനിയാട്ടം കൂടാതെ മറ്റു കലാരൂപങ്ങളൊക്കെ പഠിപ്പിക്കാനായിട്ട് ഉള്ളൊരു ടീച്ചറെ കണ്ടെത്തണവെന്നും കഥകളി പോലെയുള്ള ഫോക്ക് ഡാൻസ് പോലെ പിന്നെ തെയ്യം പോലെയുള്ള കാര്യങ്ങളും കൂടെ കുട്ടികളെ ഒന്നു മനസ്സിലാക്കി ചെയ്യാനായിട്ട് പഠിക്കണമെന്ന് താല്പര്യമുള്ള കുട്ടികൾക്കതും പഠിപ്പിക്കണമെന്ന് ഞങ്ങൾക്ക് പഠിപ്പിക്കാനായിട്ടൊരു ടീച്ചറെ കണ്ടെത്തുന്നത് ഞങ്ങൾക്ക് വളരെയേറെ ആഗ്രഹമുണ്ട് കുട്ടികളുടെ സർഗ്ഗ വാസനകൾ കണ്ടെത്തി മുന്നോട്ട് കൊണ്ടുപോകണമെന്ന് തന്നെയാണ് എനിക്ക് പറയാനുള്ളത്